എനിക്ക് പ്രിയതമമായ എൻ്റെ ബാല്യകാല സ്മരണ എന്ന് പറയുന്നത് എനിക്ക് സ്കൂൾ ദിവസങ്ങളാണ് സ്കൂളിൽ ഈ മഴയത്തൊക്കെ സ്കൂളിൽ കുടയൊക്കെ പിടിച്ച് പിന്നെ നമ്മുടെ ഓട്ടോയും ഇറങ്ങി സ്കൂളിൻ്റെ ക്ലാസ് വരെ പോകുന്നതും അത്പോലെ ഫ്രണ്ട്സിനോടൊപ്പം ഇൻ്റെർവെല്ലിനും അത്പോലെ പി ടി പീരിഡിലൊക്കെ കളിക്കാൻ പോകുന്നതും മരങ്ങളൊക്കെ ചുറ്റി കളിക്കുന്നതും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതും അതൊക്കെയാണ് എൻ്റെ ഓർമകളിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണെനിക്കു അവ ഇത്രയും പ്രിയം അല്ലെങ്കിൽ സവിശേഷമാകുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ ബാല്യത്തിൽ നിന്നും നമ്മൾ വലുതായി നമ്മുടെ പഠനമൊക്കെ കഴിഞ്ഞ് വിവാഹമൊക്കെ കഴിക്കുമ്പോൾ നമ്മളുടെയൊരു ഒരു ചെറിയ നമ്മുടെ മനസ്സിൽ വരും നമുക്ക് ആ കാലം തന്നെയായിരുന്നു നല്ലത് അല്ലെങ്കിൽ നമുക്കൊരുപാടിപ്പോൾ നമുക്ക് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ കുട്ടികളെ നോക്കണം വീട്ടുകാര്യങ്ങൾ എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തലയിലേറ്റി വെക്കുമ്പോൾ നമ്മൾ പൊതുവെ വിചാരിക്കും നമുക്കാ ഒരു കാലഘട്ടം തന്നെയായിരുന്നു നല്ലത് അല്ലെങ്കിൽ സ്കൂൾ ജീവിതം തന്നെയായിരുന്നു നല്ലത് എന്ന് അപ്പോൾ എനിക്കിങ്ങനെ ഓരോ ഓർമ്മകളും എൻ്റെ തലയിലേക്ക് ഓടിയെത്തും ഇങ്ങനെ സ്കൂളിൽ പോയതും ഓട്ടോയിൽ എല്ലാവരുടെയും കൂടെ പോയതും പിന്നെ സ്കൂളിൽ നിന്നും കൂട്ടുകാരോടൊത്ത് കളിക്കുന്നതും പിന്നെ ചില ആൾകാർ ഇപ്പം ഇഷ്ടമല്ലാത്ത ക്ലാസ്സിലെ ചില കുട്ടികളെ ഇഷ്ടപെടൂലല്ലോ അപ്പോൾ അവരോടൊപ്പം വഴക്ക് കൂടിയതും അതൊക്കെ ഇങ്ങനെ ഓർമ വരും